എനിക്കെൻ്റെ ബാല്യകാല ഓർമ്മകളെക്കുറിച്ച് ഫസ്റ്റ് പറയണത് എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാനിഷ്ട്ടമുള്ള ഞാൻ അമ്മ എന്ന എന്നോട് അമ്മയെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഞങ്ങള് ആ ചിലപ്പോൾ അങ്കണവാടില് നേഴ്സറി പോകുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പറെയായിരുന്നു നേഴ്സറി അപ്പം അന്ന് ഞാൻ പാല് കുടിക്കുവായിരുന്നു ഫീഡിങ് ഉള്ള ഒരാളായിരുന്നു സോറി പാല് കുടിക്കുവായിരുന്നു അപ്പം ആ സമയത്ത് എല്ലാവരേയും എനിക്ക് തോന്നുന്നു ഞാൻ പാല് കുടിച്ചിട്ടേ ഞാന് ഉറങ്ങതുള്ളായിരുന്നു അപ്പം ഇൻ എല്ലാവരും ഉച്ചക്ക് നല്ല ചൂട് കഞ്ഞിയും പയറൊക്കെ കഴിച്ച് എല്ലാവരും അവിടെ പായെൽ കിടന്നുറങ്ങും ഞാൻ നൈസില് വീട്ടി വന്ന് അമ്മയുടെ അടുത്തുനിന്ന് പാല് കുടിച്ച് തിരിച്ചവിടെ പോയി കിടക്കും ഞാൻ അന്നും ഇന്നും എനിക്ക് കട്ടിലേൽ കിടന്ന് ഉറങ്ങിയാൽ ഉറക്കം വരില്ല അത് എന്നും എനിക്കങ്ങനെ പണ്ട് തൊട്ടേ അങ്ങനെ ആയിരുന്നു എനിക്ക് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ ഉറക്കമേ വരത്തില്ല അത് ഞാനൊരു പ്രത്യേക ടൈപ്പായിരുന്നു അപ്പം എന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് അമ്മയ്ക്ക് തുല്യം തന്നെ ആയിരുന്നു റീജാൻറ്റിയമ്മ അങ്ങനെ വിളിക്കുള്ളു റീജാൻറ്റിയമ്മ അപ്പം റീജാൻറ്റിയമ്മക്ക് എന്നെ അത്രയ്ക്ക് കാര്യമായിരുന്നു അതിപ്പം ഞങ്ങളുടെ ടീച്ചറും പക്ഷെ എന്നാലും ടീച്ചറുടെ കുറച്ചും കൂടെ കാര്യം റീജാൻറ്റിയമ്മയോടായിരുന്നു ആൻറ്റിയമ്മ എന്നും എന്നെ തോളേൽ എടുത്ത് എന്താ കിടത്തി ഉറക്കിയിട്ട് ആൻറ്റിയമ്മ പായേൽ കൊണ്ട് കിടത്തിയാൽ ഞാൻ വീണ്ടും എണീക്കും അതൊരു സ്ഥിരം പ്രവണതായിരുന്നു എന്നെ കൊണ്ട് കിടത്തും ഞാൻ എണീക്കും എന്താണ് എനിക്ക് അമ്മ പറഞ്ഞതിനേക്കാളും ഏറ്റവും കൂടുതൽ എന്നെ എനിക്ക് ഓർക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള നിമിഷങ്ങൾ അതാണ് പിന്നെ എന്താ ആ സമയത്തൊക്കെ ഞാനൊരു ഒരാളെ ഉണ്ടായിരുന്നുള്ളു അച്ഛൻ്റെ ഫാമിലിലാണെങ്കിലും ഇവിടാണേലും ചെറുതായിട്ട് അപ്പം എല്ലാവരുടെയും അടുത്ത് കൂടെ ഒരു താരമായി മാറി ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും അന്നും ഇന്നും ഒരേ പോലെ തന്നെ എനിക്ക് എന്താ പറയുക അനുഭവിക്കാനൊരു ഭാഗ്യമുണ്ട് പിന്നെ ഇവിടെ അടുത്ത് ഒരുപാട് വീടുകളുണ്ട് രാവിലെ എണീറ്റ് അമ്മയെന്നെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരി കുട്ടി ഞാൻ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ നല്ല ഗുണ്ടു ആയിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ അമ്മയെന്നെ കുളിപ്പിച്ച് ഒരുക്കി ഇരുത്തും അപ് അപ്പറത്തെ ഷൈലമ്മ ചിക്കൻ കറി വെക്കുമ്പോൾ ജില് ജനല് തുറന്നിട്ട് എന്നെ വിളിക്കും ഞാൻ ഇവിടുന്ന് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും അപ്പുറത്തെ വീട്ടിലേക്ക് പോകുക അവിടെ പോയി വീണ്ടും ചോറ് കഴിക്കും അപ്പുറത്തെ വീട്ടിൽ പോയി ചോറ് കഴിക്കും അങ്ങനെ ഞാൻ ഞാൻ ഈ ഒരു നിരയിലെ എല്ലാ വീടും പിന്നെ അവിടത്തെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീടും അങ്ങനെ ഫുൾ ഫുഡടി ഫുഡടി ഫുഡടി കാരണം ഒരു ഗുണ്ടുമണി ആയി ഞാൻ ആർക്കും എന്നെ പിന്നെ ഒരു ഭയങ്കര ഒരു ഗുണ്ടു ഗുണ്ടു മണിയായിരുന്നു എൻ്റെ അച്ഛനൊരനിയൻ അച്ചച്ചനൊരനിയനുണ്ട് അപ്പം ഞങ്ങള് സോമൻ ചാച്ചൻ എന്നാണ് വിളിക്കുന്നത് സോമൻ ചാച്ചൻ വരുമ്പോൾ എന്നെ ഇവിടുന്ന് അക്കരെ വയലും കടന്ന് എന്നെ തോളില് തോളിലല്ലാതെ എവിടെയും ഇരിക്കില്ലായിരുന്നു അത്രക്ക് വാശിയോടെ തോളിൽ ഇരുത്തി കൊണ്ട് പോയി ഇപ്പഴും എന്നെ കാണുമ്പോൾ പറയും നിന്നെ എടുത്ത തഴമ്പാടി എനിക്ക് ഇത്രക്ക് വേദന എന്നൊക്കെ അതൊക്കെ ഒരുപാട് ഓർമ്മകള് ഒരുപാട് ഒരുപാട് ഓർമ്മകളിലായിട്ടെനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ബാല്യ കാലം അത് പിന്നെ എനിക്ക് തിരിച്ച് ഇനി എനിയ്ക്ക് വീണ്ടും തിരിച്ച് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നൊരു ബാല്യകാലായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ഉണ്ടായപ്പത്തൊട്ടൊരു നാലഞ്ച് വയസ്സ് നിമിഷങ്ങളായിരുന്നു ഞാൻ എനിക്ക് അഞ്ച് വയസ്സ് പ്രയാകുമ്പോഴാണ് അനിയത്തി ഉണ്ടാവണേ അപ്പോൾ അമ്മ എൻ്റെ അനിയത്തീനെ പ്രിജുനെ പ്രഗ്നെൻറ്റായ സമയത്തു പോലും അമ്മ എന്നെ എടുത്തോണ്ട് നടന്ന് എനിക്ക് ചോറ് വാരി തന്നിട്ടുള്ള സമയം ഉണ്ടായിരുന്നു